എവിടെ നിന്ന് വാർത്ത ലഭിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ ഈ വാർത്തകൾ ടിവിയിലൂടെയും ഇന്റര്നെറ്റിലൂടെയും പത്രത്തിലൂടെ തന്നെ കൂടുതൽ അറിയുന്നത് നമ്മൾ ലോകത്തെ കുറിച്ചു എന്തുണ്ടെങ്കിലും അത് ഇന്റര്നെറ്റ് അതിലൂടെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഒരു ദിവസം പത്രം ഇല്ല കറണ്ട് ഇല്ല ടിവി ഇല്ല അങ്ങനെയെല്ലാം വരുമ്പം നമുക്ക് ഓൺലൈൻ ആയിട്ട് സഹകരിക്കാനേ പറ്റുകയുള്ളൂ അപ്പം കൂടുതൽ വാർത്തകൾ ഓൺലൈൻ വാർത്തകളിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും എന്ത് സംശയം ഉണ്ടെങ്കിൽ ഒരു യാത്ര പോയി കഴിയുമ്പം അത് നമുക്ക് എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ തന്നെ നമുക്ക് പത്രമോ ടിവിയോ ഉപയോഗിക്കാൻ മതി ഈ ഓൺലൈൻ നെറ്റ് കൊണ്ട് മാത്രമേ ഉപയോഗിക്കപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഇതെന്ന് പറയുമ്പം ഈ ഓൺലൈൻ വാർത്തകൾ തന്നെ ആയിരിക്കും കൂടുതലും